ആ ഹലോ അതെയതെ ആ എന്താണ് പറഞ്ഞോളൂ ആ ഇന്ന് നാല് മണിക്ക് പ്ര അതെയോ ആ ഇന്ന് നാല് മണിക്ക് പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ ഞാൻ ഗ്രുപ്പിൽ ഇടാൻ പറഞ്ഞിരുന്നു ആ ഇന്നിപ്പോൾ നാല് മണിക്ക് വന്ന ഉടനെ എന്തായാലും ക്ലാസ് ഉണ്ടാവും നമ്മുടെ ഗ്രൗണ്ടിൽ ഒരു പത്ത് റൗണ്ട് ഓടിക്കേണ്ടി വരും ഓടേണ്ടി വരും ആ അത് കഴിഞ്ഞ് സ്ട്രെച്ചിങ്ങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വടത്തിലേക്ക് പോവുകയായിരിക്കും ചെയ്യുക അതെ അതെ നമ്മുടെ സഹൃദയ കോളേജിലെ ടീം ഇന്ന് നമ്മുടെ കൂടെ വലിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് നല്ലോണം നമ്മൾ വലിച്ച് കാണിച്ച് കൊടുക്കണം അവർക്കൊരു പ്രാക്ടീസും നമുക്കൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത് പിന്നെ ആ പറഞ്ഞോളൂ ആ നമ്മുടെ കൂടെയുള്ള ആർക്കോ പരിക്ക് പറ്റിയെന്നോ എന്തോ പറഞ്ഞ് കേട്ടു എന്താണ് പ്രശ്നം എന്താണ് അത് ആ എന്നിട്ട് ന്ന് എങ്ങനെ ഉണ്ട് ഇപ്പോൾ ആ ഹാ ഹാ ഓക്കെ ഓക്കെ ആ ഹാ ആ ആ ആ

ആ ത് ക നമുക്ക് പിടിച്ച് പിടിച്ച് തന്നെ ശീലം ആകത്തുളളൂ പ്രാക്റ്റീസ് ചെയ്തുതന്നെ ശീലം ആകത്തുളളൂ കൈയ്യൊക്കെ നല്ലോണം പൊട്ടി പൊട്ടി ആ നാരൊക്കെ ഇങ്ങനെ അകത്ത് കയറിയാലേ ആ തഴമ്പൊക്കെ ഇങ്ങോട്ട് വെളിയിൽ വരുളളൂ അപ്പോൾ അതിന് നല്ലത് ചെയ്യാൻ പറ്റിയാൽ ഈ പൊട്ടുമ്പോൾ കല്ലുപ്പ് വാങ്ങി കയ്യിൽ ഇട്ടാൽ മതി കയ്യിൽ കല്ലുപ്പ് വാങ്ങി കൈ ആ അതെ കയ്യിൽ കുറച്ചിട്ടിട്ട് നല്ല രീതിയിൽ രണ്ട് കയ്യിലും തേച്ചാൽ മതി കുറച്ച് നീറ്റൽ ആയിരിക്കും പക്ഷേ എന്നാലും നല്ല ഉപയോഗമാവും കൈയ്ക്ക് ഓക്കെ ആ ആ രണ്ടുമുണ്ട് നല്ല ഭക്ഷണം കഴിക്കണം നല്ല പോഷകാഹാരം ഉള്ള ഭക്ഷണം കഴിക്കണം പ്രോട്ടീൻസ് ഒക്കെ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ നോക്കണം ഈ പനീർ അങ്ങനെ പോലത്തെ ഐറ്റംസ് ഒക്കെ എത്രയും കൂടുതൽ കഴിക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെ ആ പിന്നെ മോ മോൻ വെജ് അല്ലേ മോൻ വെജ് ആയതുകൊണ്ട് അപ്പോൾ ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പനീർ മാ മാക്സിമം കഴിക്കാൻ നോക്കുക ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അടുത്ത ആഴ്ച്ചയാണ് നമ്മുടെ കളിക്കാൻ അവർക്ക് ആ അവർക്ക് നമ്മൾ ഈ സഹൃദയ കോളേജ് ഒക്കെ ആയിട്ടാണ് കളി വരിക ഒരു ഡിസ്ട്രിക്റ്റ് ലെവൽ ഗെയിം ആയിരിക്കും അപ്പം അതിനാണ് ഈ ആഴ്ച്ച മൊത്തം കണ്ടിന്യുവസ് പ്രാക്റ്റീസ് ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം ഇന്നലെ നമ്മുടെ കൂട്ടത്തിൽ അവർ അഞ്ചാറ് പേർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ അത് ഒഴിവാക്കിയത് അപ്പോൾ അതിൻ്റെ ജേഴ്സി ഒക്കെ എന്തായി റെഡി ആയോ

ആ ഹാ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ കോച്ചിന് കൊച്ചിനുള്ള ജേഴ്സി അടിച്ചിട്ടുണ്ടോ കൊച്ചിനുള്ള ജേഴ്സി അടിച്ചിട്ടുണ്ടോ ഓ ഓക്കെ ശരി ശരി ഓ അപ്പം വൈകിട്ട് കാണാം